മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രത്യേകം ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് പത്ര മാധ്യമങ്ങളെ പറ്റിയാണ് നമ്മൾ സാധാരണ പറയുന്നത് പിന്നെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഒക്കെ നമുക്ക് ടി വിയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മാധ്യമങ്ങളെ ടി വി വയ്ക്കും ടി വി വയ്ക്കുമ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഏറ്റവും അധികമായി ഞാൻ ഞാൻ സാധാരണ വായിക്കുന്നത് രണ്ട് പേപ്പർ വായിക്കും മനോരമയും വായിക്കും ദീപികയും വായിക്കും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമുള്ളത് ദീപികയാണ് ദീപിക ശരിയായ വിധത്തിലുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം മനോരമക്കാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാലും ടി വിക്കാരെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും അതായത് ഗവൺമെൻറിൻറെ ഭാഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തോ നിൽക്കുവാണെങ്കിൽ അവർക്ക് പല ആനുകൂല്യങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കും ചില അവർ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ കുറയും അവരെ അനുകൂലിക്കുകയും ഇപ്പോഴത്തെ കാര്യം കൂടും ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും വരുന്നതുകൊണ്ട് മാധ്യമങ്ങളില് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദീപിക പേപ്പർ ആണ് ആ ദീപിക പേപ്പർ വായിച്ചില്ലെങ്കിൽ എനിക്ക് തൃപ്തി വരില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ടി വി വയ്ക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ന്യൂസ് വയ്ക്കും ന്യൂസിനകത്ത് നാട്ടിലെ വിശേഷങ്ങളൊക്കെ കുറേ അറിയും ആ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വഴക്കോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ പോലെ എന്നെ വെള്ളത്തിൽ പോയ കേസ് കെട്ടുകളോ അങ്ങനെയൊക്കെ പരാ പരാതികൾ നമ്മൾ അറിയും ടി വിയിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കൂടുതൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് മെസ്സേജ് ഫോണിൽക്കൂടെ കിട്ടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ആ മെസ്സേജ് നമ്മുടെ ഒരു കാര്യം ഇങ്ങനെ വന്നിട്ടുണ്ട് മെസ്സേജ് ഇപ്പോൾ തന്നെ ബാങ്കിൽ പൈസ വന്നിട്ടുണ്ട് നമ്മുടെ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും അപ്പോൾ മെസ്സേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പെൻഷൻ പോയി എടുക്കാനും അത് പോയി മേടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ എന്നുവെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സമയം കുറച്ചാക്കാം ഇത് നമ്മൾ പോയി വന്ന് വന്നുകൊണ്ടിരുന്ന കാലം പോലെ അല്ല ഇപ്പം നമുക്കൊരു ഒരു ഒരു ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻറ് കൊണ്ട് ആൾക്കാർ നമുക്ക് അവരെ അവരെ ധരിപ്പിക്കുകയും ചെയ്യാം നമുക്ക് അറിയുവേം ചെയ്യാം അതേ സമയം നമ്മൾ പഴയ കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പത്രം വന്നാൽ അറിയും അല്ലെങ്കിൽ അവർ പോയി തിരക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പം എന്നാ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മറ്റേത് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു ഇപ്പോൾ ലാൻഡ് ഫോൺ എല്ലാം നിന്നുപോയി അത് ബി എസ് എൻ എൽ നിന്നുപോയി എല്ലാവരും അതിൻ്റെ കട്ട് ആക്കി അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വിദേശത്തുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് വിളിച്ച് അറിയുവേം ചോദിക്കുകയും മക്കളുടെ കാര്യങ്ങൾ അറിയുവേം ഒക്കെ ചെയ്യാം അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട്